ഹല്ലോ ഇത് താമരശ്ശേരിയല്ലേ താമരശ്ശേരി ഗവൺമെൻറ് സ്കൂളിലെ പ്രിൻസിപ്പാളാണോ ആ മാഡത്തിൻ്റെ പേരെന്താണ് മാഡം ഹരിതയാണല്ലേ മാഡം ഞാൻ ഇവിടെ താമരശ്ശേരി മുക്കത്തിന്നാണ്

മുബഷിറ മാഡം ഞാൻ വിളിക്കുന്നത് മുക്കത്തിന്നാണേ ഞാൻ എൻ്റെ മോനിപ്പോൾ അഞ്ചാം ക്ലാസ്സിലാണ് അപ്പം അവനവിടെ ചേർക്കാൻ വേണ്ടിട്ടായിരുന്നു ഇതുവരെ അവൻ ഞങ്ങൾ വായനാടായിരുന്നു അപ്പോൾ വയനാടായിരുന്നു നാലാം ക്ലാസ്സുവരെ പഠിച്ചത് അപ്പം ഇനി അഞ്ചാം ക്ലാസ്സിലേക്കാണ് അപ്പോൾ ഇവിടെ ചേർക്കാൻ വേണ്ടിട്ടായിരുന്നു എന്തെങ്കിലും പ്രൂഫ് എന്തെങ്കിലും വേണോ മാഡം ആ ആ ആ ടി സിയാണോ വേണ്ടത് ബർത്ത് സർട്ടിഫിക്കറ്റും വേണല്ലേ ആ പിന്നെ പി ടി ഫണ്ടൊക്കെ എത്രയാണ് വരുന്നത് മാഡം മാസം നൂറ്റി അൻപതാണല്ലേ ആ ആ പിന്നെ

ആ ഞങ്ങൾ പുറമേന്ന് മേടിക്കാം മാഡം പിന്നെ ഞാൻ ഈ സമയത്തു ചേർക്കുന്നത് ക്ലാസ് മിസ് ആയിട്ടുണ്ടാകും അവനു പഠിക്കാൻ ആ അങ്ങനെ ഫ്രീ ടൈമുള്ള ദിവസം സമയങ്ങളിലൊക്കെ ചേ എടുത്തു കൊടുക്കാനാണോ

ആ ആ ആ ടൗണിൽ തന്നെയാണോ സ്കൂളുള്ളത് ശനിയാഴ്ച ദിവസം ക്ലാസ്സുള്ളതാണോ ആ വർക്കിംഗ് ഡേ അത് അന്ന് ആ എല്ലാ ശനിയാഴ്ചയും ഉണ്ടാവുമോ രണ്ടാം ശനിക്കൊക്കെ ക്ലാസ്സുണ്ടാവാറുണ്ടോ

ആണോ ഇനിയിപ്പോൾ നാളെ ഇവനെ ചേർക്കാൻ ഞാൻ അങ്ങോട്ട് വരാവോ നാളെ മാഡം അവിടെ ഉണ്ടാവോ ആ അപ്പം നാളെ ഞാൻ അങ്ങോട്ട് രാവിലെ പത്തുമണിക്ക് അല്ലേ ആ നേരെ വന്ന് ഇപ്പോൾ മാഡത്തിനെ കണ്ടാൽ മതിയല്ലേ

ആ ആ ബർത്ത് സർട്ടിഫിക്കറ്റും ടി സിയല്ലേ വേണ്ടത് ആ ഫോട്ടോ ഒന്നു മതിയോ ഇല്ലേ രണ്ടെണ്ണം വേണോ ആ ആ ഓക്കെ എന്നാൽ ഈ നമ്പറിൽ വിളിച്ചാൽ മതിയല്ലെ അവിടെ വന്നു കണ്ടാൽ പോരെ മാഡത്തിനെ ആ ആയിക്കോട്ടെ എന്നാൽ പത്തു മണിക്ക് വരാട്ടോ മാഡം